അതെയോ ഓകെ മാഡം ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത് ആഹ് ഓക്കേ ആഹ് അതെയല്ലേ ഓക്കേ നമ്മൾ കേരളത്തിൽ ഫെയ്മസ് എന്ന് പറയുമ്പോൾ ഓണമാണ് മെയിൻ ആയിട്ട് ഓണം നമുക്ക് ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തെ ഒരു വലിയ ഒരു ഉത്സവം പോലെ അല്ലെങ്കിൽ എല്ലാ വീടുകളിലും ഇപ്പോൾ എല്ലാ ആൾക്കാരും ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് ഓണം പിന്നെ ഓണത്തിന് എല്ലാവരുടെയും സ്കൂളുകളും കോളേജുകളും ഒക്കെ ലീവാണ് ഒരു പത്ത് ദിവസം ലീവ് എല്ലാവർക്കും ഉണ്ട് പിന്നെ സർക്കാർ ഓഫീസുകളിലും ലീവ് ഉണ്ടാവും ഒരു നാലഞ്ച് ദിവസം ഓണം ആഹ് ഓണം വലിയ ഗംഭീര പരിപാടിയാണ് നമ്മുടെ മലയാളമാസം ചിങ്ങമാസത്തിലാണ് ഓണം വരാറ് ആ അതിൽ അത്തം നാ അത്തം എന്ന് പറയുന്ന നാളിന് പത്ത് ദിവസം കഴിഞ്ഞാൽ തിരുവോണം എന്നൊരു ചൊല്ലുണ്ട് അത്തം പത്തിന് തിരുവോണം നമ്മൾ മെയിൻ ആയിട്ട് നാല് ദിവസമാണ് ഓണം ആഘോഷിക്കാറ് ഉത്രാടം തിരുവോണം അവിട്ടം ചതയം അതാണ് ആ ഓ അതെ അത്തം മുതൽ നമ്മൾ പൂക്കളം ഇടാനും അങ്ങനത്തെ പരിപാടിയൊക്കെ തുടങ്ങും ആ അതെ ആ അത്തം മുതൽ നമ്മൾ പൂക്കളം ഇടും എല്ലാദിവസവും വീട്ടിൽ പിന്നെ കുട്ടികളും ഉമ്മമാരും എല്ലാവരും കൂടി ഇരുന്ന് പൂക്കൾ ഒക്കെ ഇടും എന്നിട്ട് വിരുന്ന് പോയ ആൾക്കാരൊക്കെ തിരിച്ചു വരും ആ ഓണത്തിന് പിന്നെ സദ്യ ഉണ്ടാവും കുറെ അമ്പലങ്ങളിൽ ഫേമസ് ആയിട്ടുള്ള അമ്പലപ്പുഴ സദ്യയുണ്ട് പിന്നെ അതുപോലെ ആറാട്ടുപുഴ സദ്യയുണ്ട് അങ്ങനെ കുറേ ഫേമസ് ആയിട്ടുള്ള സദ്യ ഈ ഓണത്തിനോട് അനുബന്ധിച്ച് ഉണ്ട് അമ്പലപ്പുഴ ഉണ്ട് ആറാട്ടുപുഴ ഉണ്ട് പിന്നെ ഈ വള്ളംകളി സദ്യ വള്ളംകളി ഓണത്തിനോട് അനുബന്ധിച്ചാണ് വരാറ് കേട്ടിട്ടുണ്ടോ വള്ളം ആ അതുണ്ട് ഈ വള്ളംകളി കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആ വള്ളംകളി ഒരു അടിപൊളി പരിപാടിയാണ് നമ്മൾ അതു വെച്ചുകഴിഞ്ഞാൽ മൂന്ന് അത് സ്ഥിരമായിട്ട് കുറെ ടീമുകൾ ഉണ്ടാവും അവര് നമ്മൾ ഈ സാധാരണ ഈ ബൈക്ക് റേസ് എന്ന് പോലെ ഒക്കെ ഉണ്ടല്ലോ അതുപോലെ അവര് മറ്റേ നമ്മൾ വള്ളത്തിൽ വേമ്പനാട്ടുകായലിലും അഷ്ടമുടി കായലിലുമൊക്കെ വള്ളം വെച്ചിട്ട് വലിയ നീണ്ട ഇത് ഉണ്ടാവും ഓൾ പള്ളിയോളങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംഭവം വലിയ തന്നെ നീളമുള്ള സംഭവങ്ങൾ അതിൽ ഒരു പത്തിരുപത്തിനാല് പേര് ഒരുമിച്ചിരുന്ന് തുഴഞ്ഞ് ഒരു നാലഞ്ച് ടീമിന്റെ ഒപ്പം മത്സരിച്ച് അതിൽ കപ്പ് അടിക്കുന്ന ടീമുകൾ അങ്ങനെ ഒരു നല്ല കാണാൻ തന്നെ നല്ലൊരു ഉഷാറ് പരിപാടിയാണത് സാധാരണ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ മാസങ്ങളിലാണ് വരാറ് അതെയതെ പിന്നെ തൃശ്ശൂർ പുലിക്കളി ഉണ്ട് ചതയം ദിവസം ആ അതും ഉഷാറ് പരിപാടിയാണ് നമ്മുടെ തൃശ്ശൂർ അന്ന് ഫുള്ള് ട്രാഫിക്ക് ഒക്കെ ബ്ലോക്ക് ആയിരിക്കും രാവിലെ തൊട്ട് എല്ലാ അവിടത്തെ ചെറിയ ചെറിയ അമ്പലങ്ങളിൽ നിന്നും പിന്നെ കുറേ ടീമുകൾ ഇതേപോലെ പുലികളുടെ വേഷങ്ങളൊക്കെ കെട്ടിയിട്ട് നല്ല കൊട്ടും വാദ്യവും മേളങ്ങളും കേട്ട് ഇങ്ങനെ തൃശ്ശൂർ റൗണ്ടിൽ ഇങ്ങനെ കളിക്കും ആ അത് നല്ല രസമാണ് അപ്പോൾ അത് കാണാൻ കുറേ അമ്മമാർ ഉണ്ടാകും അതൊരു നല്ല രസമുള്ള പരിപാടിയാണ് ആ ഓക്കേ ഓക്കേ ഞാൻ പിന്നെ എല്ലാ വീട്ടിലും സദ്യയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതൊക്കെ തന്നെയുള്ളൂ അതല്ലാണ്ട് ഓണം ആ പിന്നെ എല്ലാവർക്കും കുറേ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുക്കും കുട്ടികൾ എന്നാലും എല്ലാവരും ഒരുമിച്ച് ഒത്തുചേരുന്ന ഒരു പരിപാടിയാണ് ഓണം അതെ അതെ കേരളത്തിലെ പേര് കേട്ട ഫെയ്മസ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ തന്നെയാണ് ഓണം പിന്നെ വിഷു ഉണ്ട് പിന്നെ ദീപാവലി അങ്ങനെ കുറെയധികം ഉണ്ട് എന്നാലും ഓണത്തിന്റെ അത്രയും എതും വരില്ല ഓക്കേ എന്തായാലും വിളിക്കും